അത് പണ്ടുകാലം മുതലേ പണ്ടുകാലത്തൊന്നും വാർത്തകൾ വല്ലാതെ അറിയാൻ കഴിയില്ലായിരുന്നു എന്നാല് ഇതിനിടയ്ക്ക് ഈ ഒന്നാം ലോകമഹായുദ്ധം രണ്ടാം ലോകമഹായുദ്ധം ആ യുദ്ധങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ സ്വാധിനിച്ചിട്ടുള്ളത് വാര്ത്താ മാധ്യമങ്ങളാണ് കാരണം ജനങ്ങളിലേക്ക് തെറ്റായ നിര്ദ്ദേശം എത്തിച്ചുക്കൊടുക്കുന്നതിനും ജനങ്ങളുടെ കാര്യങ്ങള് സത്യം അറിയുന്നതിലും വാര്ത്താ മാധ്യമങ്ങള് വലിയ പങ്കു വഹിക്കുന്നുണ്ട് അതിൽ ഈ രണ്ടാം ലോകമഹായുദ്ധകാലത്തിലൊക്കെ ഈ യുണൈറ്റ് അമേരിക്ക അങ്ങനെത്തെ വന് ശക്തികളുടെ കൂടെ എപ്പോഴും നിന്നിട്ടുള്ളത് മാധ്യമങ്ങള് തന്നെയാണ് അത് കഴിഞ്ഞിട്ട് ഏതൊക്കെ മിഡില് ഈസ്റ്റിലെ പല രാജ്യങ്ങളും ആക്രമിക്കുകയും അധിനിവേശം ചെയ്യുമ്പോഴൊക്കെ മാധ്യമങ്ങള് ആ ഒരു പാശ്ചാത്യ ശക്തികളുടെ കൂടെയാണ് നിന്നിട്ടുള്ളത് അപ്പോൾ അത് അങ്ങേയറ്റം പരിതാപകരമാണ് കാരണം ഇപ്പോഴാണെങ്കിൽ ഈ സോഷ്യല് മീഡിയയുടെ കൂടെ വരവോടു കൂടിയാണ് പിന്നെ ഈ മാധ്യമങ്ങള് പറയുന്നത് ശരിയോ തെറ്റോ എന്ന് ജനങ്ങള് ചിന്തിക്കാന് തുടങ്ങിയത് പണ്ട് കാലത്തൊന്നും അങ്ങനെ ഇല്ലായിരുന്നു ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും പല വ്യാജ വാര്ത്തകളും പ്രസിദ്ധീകരിച്ചു ജനങ്ങളെ ഈ ഈ സോഷ്യല് മീഡിയ ഉപയോഗിക്കാത്ത ജനങ്ങളൊക്കെ പൊട്ടന്മാരാക്കുന്ന പരിപാടികള് ഇപ്പോഴും ഉണ്ട് കാരണം മാധ്യമധര്മം തന്നെ അവർ മറന്നുകൊണ്ടാണ് ഇങ്ങനെത്തെ കാര്യങ്ങള് ചെയ്യുന്നത് കാരണം കുത്തക മുതലാളിമാരുടെ പണവും കാര്യങ്ങളും വാങ്ങിക്കൊണ്ട് അവർ ഇങ്ങനെ ഓരോന്ന് ജനങ്ങളിലേക്ക് തെറ്റായ നിർദ്ദേശങ്ങള് എത്തിച്ചു കൊടുക്കുന്നു അപ്പോൾ എല്ലാ വേറൊരു രാജ്യം വേറൊരു രാജ്യത്തെ അധിനിവേശം ചെയ്യും പോവും ആ രാജ്യത്തിനെതിരെ വരുന്ന പല ഇല്ലാത്ത കഥകളും ഇങ്ങനെയാണ് ഉണ്ടാക്കി വിടുന്നത് അത് ഇപ്പോഴും ഇപ്പോഴും ഉണ്ട് ഏത് ഒരു രാജ്യത്ത് ആരാണോ ഭരിക്കുന്നത് അവരുടെ കൂടെയായിരിക്കും ഏകദേശം തൊണ്ണൂറു ശതമാനം മാധ്യമങ്ങളും ഒക്കെ അങ്ങനെയാണ് വരുക ഒരു പവര്ഫുള് ഭരണങ്ങളൊക്കെ ആയിരുന്ന ഒരു രാജ്യത്ത് ഭരിക്കുകയാണെങ്കില് മാധ്യമങ്ങള് മാധ്യമങ്ങളെ അവര് ഒന്നാമത് പണം കൊടുത്തും അല്ലാതെയും സ്വാധീനിക്കും എന്നിട്ട് അവരുടെ കൂടെ കൂട്ടും